ഇന്ത്യയിലെ ഇപ്പൊൾ ആത് ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് പറയുവാണേൽ പറഞ്ഞാല് പണ്ടത്തെ കാട്ടിലും വളരെ മുമ്പോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നെ വളരേ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആരോഗ്യ പരിപാലനമാണ് ഇപ്പൊൾ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പൊൾ വന്നിട്ടുള്ളത് നമുക്ക് പുതിയ പുതിയ ടെക്നോളജികളുപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊൾ എന്ത് പുതിയ വൈറസും കാര്യങ്ങളൊക്കെ വന്നാലും നമുക്കതിനെ പെട്ടെന്ന് ഒരു പ്രതിരോധ രീതിയില് മറ്റു വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊൾ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് നോക്കണെന്ന് പറയുമ്പോൾ നു നൂതനമായ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് വിവിധ തരത്തിലുള്ള ഏത് അസുഖം വന്നാലും അതിന് പെട്ടന്ന് മരുന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പെട്ടന്നൊരു എന്താ പറയുക ഉപാധി അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ടത് അത് ചെയ്യാനും പറ്റുന്നുണ്ട് അങ്ങനെ ഏത് വിധേന നോക്കുവാണെങ്കിലും നമുക്ക് ഇപ്പൊൾ നമ്മുടെ ആരോഗ്യം ആരോഗ്യ പരിപാലന രംഗം നമുക്ക് വളരെ മുന്നിലാണ് അപ്പൊൾ അതിൽ ചെന്ന് ചേരുന്ന ചില പ്രശ്നങ്ങൾന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ ബയോ വേസ്റ്റ് അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഓരോ നശിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ വേസ്റ്റ് കൃത്യമായി നശിപ്പിച്ചില്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരേ ദോഷം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അത് എങ്ങനെയാണ് കൃത്യമായിട്ട് നശിപ്പിച്ച് കളയേണ്ടത് എന്നിട്ടുള്ള കാര്യങ്ങളിലും പുതിയ ടെക്നോളജികളുപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊൾ അതും കൂടെ മുന്നോട്ട് വന്ന് കഴിഞ്ഞാ നമുക്ക് വളരെ എന്താ പറയുക നമ്മുടെ ആരോഗ്യ മേഖല ഒന്നും കൂടെ മെച്ചപ്പെട്ടത് ആകാൻ സാധിക്കും